ഞാൻ അടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടങ്ങളിലും ഒക്കെ പോകാറുള്ളത് എന്താണ് എനിക്ക് സമയം കിട്ടുമ്പോളൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട് അവിടെ കാരണം അവിടെ നമുക്ക് നിറയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും അവിടെ ഇങ്ങനെ വഴിയോരങ്ങളിൽ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ ഉണ്ടാകും അതുപോലെ നിറയെ ഫുഡ് തട്ടുകട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും പല വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഓരോ കടയിലും ചെന്നാൽ കാണാനും സാധിക്കും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ വാങ്ങാനായി സാധിക്കും പിന്നെ നിറയെ പച്ചക്കറികളൊക്കെ ഉണ്ടാകും അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടു വരുന്ന ഫ്രഷ്ഷായിട്ടുള്ള പച്ചകറികൾ നമുക്ക് അവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള ഗ്രാമങ്ങളിൽ ഒക്കെ പോകാറ് അതുപോലെ തന്നെ അവിടെ നിറയെ വെറൈറ്റിയായിട്ടുള്ള ഫുഡ് ഉണ്ടാകും നോർമലായിട്ട് അത് എന്താ പറയുക അധികം വീടുകളിൽ തന്നെ പാകം ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ്ഡായിരിക്കും നമുക്ക് അവിടെ കിട്ടുക നല്ല അത് ഒരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത ഫുഡ്ഡായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഞാൻ ഇവിടെയാണ് പോകാറ്